ഞാൻ ഭാരതിൻ്റെ ഗ്യാസാണ് എടുക്കാറ് സാധാരണ ഞാൻ ഭാരതിൻ്റെ ഗ്യാസു തീർന്നതു കൊണ്ട് ഇൻഡെയിനിൻ്റെ ഗ്യാസെടുത്തു പക്ഷേ ഒരാഴ്ചകൊണ്ട് എൻ്റെ ഗ്യാസ് ഒരു കുറ്റി ഗ്യാസ് കുറ്റി തീർന്നു നമ്മൾ ആയിരത്തി സംതിങ് രൂപ കൊടുത്തിട്ട് ഒരു കുറ്റി ഗ്യാസ് വാങ്ങുമ്പോൾ ഒരാഴ്ച കൊണ്ട് തീരുമ്പോൾ ഉള്ള അവസ്ഥ ആലോചിച്ചു നോക്ക് എനിക്ക് രണ്ട് മാസം ഗ്യാസ് നിൽക്കുന്നയാണ് പക്ഷേ ഗ്യാസ് പെട്ടെന്ന് തീർന്നു ഗ്യാസ് ഭയങ്കര ക്വാളിറ്റി ഭയങ്കര കുറവായിരുന്നു ക്വാണ്ടിറ്റിയും കുറവായിരുന്നു ഭയങ്കര പൈസയും കൊടുത്ത് വാങ്ങികൊണ്ട് വന്നിട്ട് ഗ്യാസ് ഒറ്റ ആഴ്ചകൊണ്ട് തീർന്നു പോയി